ഞാൻ അടുപ്പിലാണ് പാചകം ചെയ്യുന്നത് അത് എല്ലാം എല്ലാ ചോറും കറികളും എല്ലാം അടുപ്പിലാണ് ചെറുപ്പത്തിലേ പഠിച്ച ശീലമാണ് പിന്നെ എല്ലാം അടുപ്പിലന്നെ നമ്മൾ ചെയ്യും പിന്നെ കത്തിക്കാൻ കത്തിക്കാൻ ഓല മടൽ പിന്നെ ചേരി ചിരട്ട ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കത്തിക്കൽ പിന്നെ വെറ് എങ്ങനെ എങ്ങനെ ആയാലും സംഘടിപ്പിക്കും വിറക് പിന്നെ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇത് കു ഗ്യാസിലും കുക്ക് ചെയ്യാൻ ഇഷ്ടം തന്നെ വേഗം പെട്ടന്ന് ആകും എന്നാലും എനിക്കിഷ്ടം വിറകടുപ്പാണ് വിറകടുപ്പിലാണ് എപ്പോഴും നമുക്ക് ചോറൊക്കെ നല്ല വെന്ത് കിട്ടുക കു ഗ്യാസടുപ്പിലാണെങ്കിൽ വെന്ത് കിട്ടൂല്ല കുറെ സമയം എന്താനും കുറെ സമയം വേണ്ടി വരും അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ അടുപ്പിൽ പാചകം ചെയ്യുന്നത് പിന്നെ എനിക്ക് ഇഷ്ടമാണ് പാചകം ചെയ്യാൻ പിന്നെ എൻ്റെ വീട്ടുകാരും സഹായിക്കും എന്നാലും എനിക്ക് കുക്കിങ്ങാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് പിന്നെ ഇത് എന്താന്ന്ച്ചാൽ സാമ്പാറുണ്ടാക്കും അവിയൽ ഉണ്ടാക്കും പിന്നെ പുളിശ്ശേരി പിന്നെ ക കടലക്കറി പിന്നെ അപ്പം ഉണ്ണിയപ്പം പിന്നെ വെള്ളേപ്പം ദോശ ഇഡ്ഡലി പിന്നെ ഇത് വേണ്ടി ഊത്തപ്പം പിന്നെ പിന്നെ കടല കടലയും പിന്നെ റൈസ് കൂട്ടിട്ട് ഒരു അപ്പോണ്ടാക്കും പിന്നെ കൊഴുക്കട്ട പിന്നെ ഇത് നമ്മൾ ഇതിൽ കൊഴുക്കട്ട ഒരു പിന്നെ കടുകിട്ടിട്ട് കടുകിട്ട് വറുത്തിട്ട് ഒരു കൊഴുക്കട്ടയുണ്ടാക്കും ഇതെക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അത് എൻ്റെ ചിക്കൻ കറി എല്ലാവർക്കും നാട്ടുകാർക്ക് ഇഷ്ടമാണ് അവരെല്ലാം ചോദിക്കും നിങ്ങളെങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് അവർക്കെല്ലാം ഞാൻ പറഞ്ഞ് കൊടുക്കും ഇങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് അപ്പം അവരെല്ലാം അത് ചെയ്ത് പറയും നിങ്ങളത്ര ശരിയായിട്ടില്ല നിങ്ങളുടെ പാചകം അടിപൊളി എന്നൊക്കെ പറയും ഇത് അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞ് കൊടുക്കും ഇങ്ങനെ ചെയ്യണം സാമ്പാർ ഇങ്ങനെ സാമ്പാർ ഇങ്ങനെ അവിയൽ ഇങ്ങനെ എല്ലാവർക്കും ഞാൻ അതിന് ക്ലാസ്സെടുക്കും അവരതുപോലെ ചെയ്യും എന്നാലും പറയും വന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്തത് പോലെ ആയിട്ടില്ല അത് അതിനെ പിന്നെന്ത് എന്താന്ന് വെച്ചാൽ പിന്നെ എല്ലാം ചെയ്യുന്നത് നമ്മളാണ് എൻ്റെ വീട്ടുകാരും കൂടും എന്നോടൊപ്പം എല്ലാവരും പാചകം ചെയ്യൽ ഞാൻ തന്നെ പിന്നെ അത് വിറക് അടുപ്പിൽ തന്നെയാന്ന് നമ്മൾ ചെയ്യൽ എല്ലാം പിന്നെ അടുത്ത് എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഫങ്ങ്ഷന് എല്ലാം എന്നെ വിളിക്കും വിളിച്ചെങ്കിൽ ഞാൻ അവിടെ പാചകത്തിൻ്റെ അവരെന്നെ ആടെന്നെ നിൽക്കും പാചകം ചെയ്യാനല്ലാന്നെ നിൽക്കും പിന്നെ അവരെല്ലാം പറയും നിങ്ങൾ ചെയ്ത പാചകം നല്ലതാന്ന് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ അങ്ങനെ ചെയ്യും പിന്നെ എന്താന്ന് വെച്ചാൽ ഹോബി അതന്നെ എൻ്റെ ഹോബി പാചകം കുക്കിങ്ങിന് ഇത് തന്നെ എനിക്ക് ഹോബി ഇത് ഇതാക്കും പിന്നെ ഇത് തേങ്ങാ തേങ്ങാപ്പാലെടുത്തിട്ട് പായസമുണ്ടാക്കും പിന്നെ പാൽപ്പായസം ഉണ്ടാക്കും പിന്നെ അതെല്ലാം ചെറുപയറിട്ടിട്ടൊരു പായസം വേറെ പിന്നെ അങ്ങനെ അങ്ങനങ്ങനെ കുറെ പാചകങ്ങൾ ഞാൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കും പിന്നെ ഈ പാത്രങ്ങൾ പാത്രങ്ങൾ അടുപ്പത്ത് വെച്ച് പാത്രങ്ങളെല്ലാം കഴുകാന് ഭയങ്കര കഷ്ടമാണ് എന്നാലും ഞാനടുപ്പത്ത് തന്നെ വെച്ചിട്ട് എല്ലാം കരിയും പുകയെല്ലാം ഏറ്റിട്ട്ന്നെ പാചകം ചെയ്യുന്നത് അതാന്ന് നമുക്ക് നല്ല ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുക പിന്നെ ഇത് എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ് എല്ലാവർക്കും ഞാൻ ചെയ്തത് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് നെയ്യപ്പമുണ്ടാക്കും പിന്നെ അങ്ങനെ എന്തെല്ലാം വെറൈറ്റി സാധനങ്ങളെല്ലാം കുറെ ഉണ്ടാക്കിട്ട് അത് കഴിക്കാനിഷ്ടം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും അങ്ങനെല്ലാം ചെയ്യും പിന്നെ നിലക്കടല കൊണ്ട് വന്നിട്ട് അങ്ങനെ ഒരു കട്ലേ കട്ലെറ്റ് പോലത്തെ അങ്ങനെ വെല്ലം എല്ലാം ഇട്ടീട്ട് അങ്ങനെ ഒരു പാചകം ചെയ്യും അങ്ങനെല്ലാം ഉണ്ട് എല്ലാം ഇതാണ് അത്രയെ ഉള്ളു